ഇത് പിന്നെ റെസ്റ്റോറൻറ് അല്ലേ നല്ല ഫുഡൊക്കെ കൊടുക്കുന്നത് കോഴിക്കോട് എനിക്ക് ഞങ്ങളൊരു മുപ്പതുപേർ ടൂർ വരുന്നുണ്ട് തിരുവനന്തപുരത്ത് നിന്ന്

അവർക്ക് നല്ല ഫുഡ് ഐറ്റംസ് മീനിന്റെയൊക്കെ പിന്നെ നല്ല കപ്പബിരിയാണി പിന്നെ കക്ക പൊരിച്ചത് അങ്ങനെ കുറേ ഐറ്റംസ് അവർക്കെല്ലാവർക്കും വേണം അങ്ങനെ അതൊക്കെയുണ്ടോ അവിടെ ഇല്ലെങ്കിൽ

ആണോ ഞങ്ങൾ ഈ മാസം ഒരു പന്ത്രണ്ടിന് പുറപ്പെടാം എന്നു വിചാരിക്കുന്നു അന്ന് രാവിലത്തേക്കുള്ള ഫുഡ് ഞങ്ങൾക്ക് കിട്ടുമോ അവിടെ നിന്ന് വിളിച്ചു ബുക്ക് ചെയ്യണോ ആ അതുമതി ഓക്കെ